ഹലോ ആ ഓക്കേ ഏ നമ്മൾ എ ഇവിടെ ബാംഗ്ലൂർന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് പേർ അതായത് നാല് പേരാണ് വരുന്നത് കപ്പിൾസായിട്ട് അതായത് രണ്ട് കപ്പിൾസ് അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടല്ല വരുന്നത് അപ്പം പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ നമ്മൾ ട്രെയിനിലാണ് വരുന്നത് കോഴിക്കോട് അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടല്ല വരുന്നത് അപ്പം നിങ്ങളൊന്ന് വണ്ടി അതായത് നിങ്ങൾ അവിടെ എങ്ങനെ ഏതൊക്കേ തരം വണ്ടികളുണ്ട്

ആ ഓക്കേ അപ്പം നമുക്ക് ബുള്ളറ്റ് മതി രണ്ട് അതായത് എ രണ്ട് ഒരു കപ്പിൾസിന് ബുള്ളറ്റും ഒരു കപ്പിൾസിന് ഹിമാലയനും മതി

ആ ആ

ആണല്ലേ ആ ഹാ ഹാ പിന്നെ നിങ്ങൾ എണ്ണ എത്ര തരും നമുക്ക് രണ്ട് ഹെൽമെറ്റേ പ്രൊവൈഡ് ചെയ്യുള്ളൂ

ആണോ നമ്മൾ കൊണ്ട് വരണോ ഹെൽമറ്റ് ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നതിൻറ്റെ ഒരു രണ്ടുദിവസം മുന്നേ നിങ്ങളെ വിളിക്കാം ഓക്കേ ആആ അ ഓക്കേ ഓക്കേ എന്നാൽ നിങ്ങൾ അപ്പോഴ്ത്തേക്കൊന്ന് റെഡി ആക്കി വെച്ചാൽ മതി കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ വിളിക്കാം ഓക്കേ ഓക്കേ